പണ്ടെല്ലാം നമ്മൾ എന്താ പറയുക നമ്മൾ എഴുതിക്കുറിച്ച് അച്ചടിച്ച് അങ്ങനൊരു ഇതായിരുന്നു ഇപ്പം എന്താ പറയുക മൊബൈൽ ഫോണ് സ്മാർട്ട് ഫോണ് വന്നതുകൊണ്ട് തന്നെ എന്താ പറയുക ഒരു വിരൽത്തുമ്പിൽ ജസ്റ്റ് ടച്ച് ചെയ്താൽ നമ്മൾക്ക് ഒരാളെ കൂൾ ചെയ്യാം അല്ലെങ്കിൽ കാണാം നമ്മളൊരു സ്ഥലത്തു പോയി കാണേണ്ട ആവശ്യമില്ല നമ്മൾ കാണാം എന്താ പറയുക അയാളെക്കുറിച്ച് അറിയാം എന്താ പറയുക നമ്മൾക്ക് പെട്ടെന്ന് എല്ലാം ആക്സസ്സ് ചെയ്യാൻ പറ്റുന്ന സാങ്കേതിക വിദ്യയിൽ മാറ്റം വന്നിട്ടുണ്ട് അതുപോലെതന്നെ ഇപ്പം എന്തായിക്കോട്ടെ നമ്മുക്ക് ഇപ്പം എല്ലാം ഓൺലൈനാണ് ഇപ്പം ബാങ്കിൽ പോകേണ്ട ആവശ്യമില്ല എല്ലാം ഓൺലൈൻ പേയ്മെന്റാണ് ഉണ്ടാവുന്നത് അതുപോലെ തന്നെ നമ്മളിപ്പം പണ്ടൊക്കെ അറ്റന്റൻസായിരുന്നു ജോലി സ്ഥലത്ത് ഇപ്പം എന്നു വച്ചാൽ പഞ്ച് ചെയ്താൽ മതി പഞ്ച് ചെയ്തിട്ടുണ്ടെങ്ങിൽ പഞ്ച് ചെയ്യുന്ന തൊട്ട് അവരവിടെ ഉണ്ടെങ്കിൽ അവർ ഫുഡ് കഴിക്കുമ്പം ആയിക്കോട്ടെ പഞ്ച് ചെയ്യണം അതുപോലെതന്നെ പോകുമ്പോൾ പുറത്ത് പോവുമ്പോൾ അങ്ങനെ പഞ്ച് ചെയ്യണം നമ്മൾ എല്ലാം പഞ്ചിങ്ങ് സിസ്റ്റം ആണ് സാലറി ആയിക്കോട്ടെ എല്ലാം നിർണ്ണയിക്കുന്നതിന് പഞ്ചിഞ്ച് സിസ്റ്റമുണ്ട് അപ്പം അതൊക്കെ ഒരുപാട് ഇതുണ്ട് അല്ലെങ്കിൽ രാവിലെ പോയി ഒപ്പിട്ട് കൊടുക്കണം അതു ചെറിയ പ്രശ്നങ്ങൾ ഉണ്ട് ഇപ്പോഴത്തെ കാലത്തെന്നു പറഞ്ഞാൽ സാങ്കേതിക വിദ്യയിൽ വളർച്ച കൊണ്ടുതന്നെ ഒരുപാട് രീതിയിൽ മാറ്റമുണ്ട് ഇപ്പോൾ എല്ലാം ഇന്റർനെറ്റ് യുഗമാണ് ഇന്റർനെറ്റ് ലൈഫാണ് സ്മാർട്ട് ലൈഫാണ് സ്മാർട്ട് ഫോണാണിപ്പം ആർക്കും ഉപയോഗിക്കാനറിയാത്ത ആരും ഇല്ല എന്താ പറയുക എല്ലാവർക്കും എല്ലം ഉപയോഗിക്കാനറിയാം അതുകൊണ്ടുതന്നെ നല്ല രീതിയിൽ നല്ല മാറ്റങ്ങളുണ്ട് അതുപോലെതന്നെ ഒരുപാട് ജോലി സാധ്യതകൾ ഉണ്ട് ഇപ്പോൾ ആരും അൺഎംപ്ലോയ്മെന്റ് അല്ല അൺഎഡ്യൂക്കേറ്റഡ് അല്ല എല്ലാവർക്കും ജോലിയുണ്ട് ചെറുതെങ്കിൽ ചെറുത് ഒരു ജോലി ഉണ്ട് എല്ലാവരും നോളജ് അക്ക്യൂറ് ചെയ്യുന്നുണ്ട് അതുകൊണ്ടുതന്നെ നമുക്ക് എന്താ പറയുക സാങ്കേതിയ വിദ്യയിലെ വളർച്ച ജീവിതത്തിൽ നമ്മൾ ഒരുപാട് മാറ്റം മാറ്റം വഹിച്ചിട്ടുണ്ട്